ഓൺലൈൻ ഡെലിവറി കമ്പനി അല്ലേ ഞാൻ ആണേ ഒരു കമ്പ്ലൈൻ്റ് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ അവടെ നിന്നൊരു കപ്പ് സെറ്റ് ഓഡറ് ചെയ്തിരുന്നു അപ്പോൾ അത് എനിക്ക് ഇന്നാണ് അത് കിട്ടിയത് കിട്ടിയതും ഞാൻ പായ്ക് അഴിച്ചു നോക്കുമ്പഴ് കാണുന്നത് അതിലെ രണ്ട് കപ്പുകൾ പൂർണ്ണമായിട്ടും പൊട്ടിയിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ പിടി പൊട്ടിപ്പോയി അത് എനിക്ക് തോന്നുന്നത് അതിന്റെ പാക്കേജിങ്ങ് ശരിയല്ല മോശമായിരുന്നു അത് കാരണമാണ് അത് അങ്ങനെ സംഭവിച്ചു പോയത് അപ്പോൾ അത് നമുക്ക് ഇനി അത് റീഫണ്ട് ചെയ്തു അത് തിരിച്ച് തരണം നമുക്ക് അപ്പം അത് അതിന്റെ റീഫണ്ട് ചെയ്യണം അതിന്റെ എമൗണ്ട് അതിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് ചെയ്തേ പറ്റൂ റീഫണ്ട് ചെയ്തു തന്നേ പറ്റുകയുള്ളു അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്